വീട്ടുമുറ്റത്തും പൂന്തോട്ടങ്ങളിലും നമുക്ക് പക്ഷികളെ ആകർഷിക്കാൻ പല പല വഴികൾ ഉണ്ട് വിളിവുകൾ നടുക ഇതിനോടെല്ലാം പക്ഷികൾ നമ്മടെ വീട്ടുകളിലേക്ക് കടന്ന് വരും അതുപോലെതന്നെ നമ്മൾ വീട്ടിൽ പുറത്ത് നിന്നുള്ള ആഫ്രിക്കൻ ലൗ ബേഡ്സ് കോക്കറ്റൈല് മിംഗ് ബേഡ് അങ്ങനെയുള്ള പക്ഷികളെ കൂട്ടിൽ അടച്ചിടുമ്പോൾ നമ്മുടെ നാട്ടിലെ ഭൂപ്രകൃതി കാരെ ഭൂപ്രകൃതിക്കിണങ്ങിയ ബുൾബുൾ മുതലായ മുതലായവ കടന്ന് വരും നമ്മുടെ വീടുകളിലേക്ക് അവർ ആകൃഷ്ടരാകും അത് വരി നമ്മുടെ വീടുകളിലേക്ക് പക്ഷികൾ കടന്ന് വരും പ്രധാനമായും പക്ഷികൾക്ക് ധാന്യവും വെള്ളവും ഞാൻ സ്ഥിരമായി നൽകാറുണ്ട് അതാണ് പ്രധാനമായൊരു കാരണം ഫൂമിശാസ്ത്രത്തിനെണങ്ങിയ വീതം വീടുകൾ പച്ചപ്പും അതുപോലെതന്നെ സ്മൂക്ഷമായ ഗ്രീനറി പ്രകൃതിയോടെണങ്ങി ചേർന്ന് ജീവിക്കുന്നവർ ആണ് നമ്മുടെ വീട്ട്കളില് പക്ഷികൾ വരുന്നത് ചില ആളുകൾ പക്ഷികൾ വന്ന് കളകൾ നശിപ്പിക്കുകയും പക്ഷികൾ പാത്രം കൊട്ടിയും ശബ്ദങ്ങക് ഒക്കെ ഉണ്ടാക്കിയും ഓടിക്കാറുണ്ട് നമുക്ക് പക്ഷികളെ വളരെ സൗമ്യമായി ഇണക്കിയും ലാളിച്ചും കൊഞ്ചിച്ചും വളര്ത്താവുന്നാന്ന് കുഞ്ഞിനാണ് എങ്കില് പണ്ടെക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണാറുണ്ടായിരുന്നൊരു പക്ഷിയായിരുന്നു തത്ത തത്ത പലമിതമുണ്ട് മലന്തത്ത തെങ്ങും തത്ത തെങ്ങും തത്ത നമ്മടെ നാട്ടിൽ ഇപ്പളും കാണാറുള്ള ഒരു പക്ഷിയാണ് പക്ഷേ മലന്തത്തയുടെ കാര്യം അങ്ങനെയല്ല മലന്തത്ത ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കാലഹരണക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ വീടിന്റെ ടെറസുകളിൽ ധാന്യങ്ങൾ വിതറിയിട്ട് മലന്തത്തയ്ക്ക് ആഹാരം നൽകാറുണ്ട് അങ്ങനെ ഒരു തത്തക്ക് നമ്മളില് ഒരു വിശ്വാസം ഉണ്ടായാല് വീണ്ടും വേറേം തത്തകള് നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരും